വളരെ മോശമായിട്ടോ വളരെ മോശമായി നിങ്ങളുടെ ഡ്രൈവർ എന്നോട് ചെയ്തത് ഇന്ന് എനിക്ക് അർജൻ്റായിട്ട് ദുബായി പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ അർജൻ്റായിട്ട് എടുത്ത് പോയതായിരുന്നു എന്ത് ചെയ്യാം ഡ്രൈവറ് ഒരു ഉപകാമില്ലാത്ത ഡ്രൈവർ അയാളുടെ ഡ്രൈവിങ്ങോ ശരി അല്ല എത്ര ലാഗായി അറിയാം എനിക്ക് ഓരോ തോറും മെല്ലെ മെല്ലെ മെല്ലെ നീങ്ങുന്നത് ഒരു ഓട്ടോറിക്ഷ കൂടി ഇതില്ലാതെ പോകും അത് കാർ ഡ്രൈവറാണ് എന്ത് ചെയ്യാനാണ് എനിക്ക് ക്യാഷ് തരാൻ വയ്യ ഓക്കേ ക്യാഷ് തരാൻ കരുതുന്നില്ല തന്ന പണം എനിക്ക് തിരിച്ചും വേണം ഓക്കേ ഇവിടെ നടക്കില്ല ഒന്നാമത്തേതിന് എന്തായാലും കംപ്ലൈൻ്റ് പറയും വേറെ എല്ലാവരോടും പറയുകയും ചെയ്യും ഈ ഏജൻസി ട്രാൻസ്പോർട്ട് ഏജൻസി നിന്ന് ഇനി ആരും പോകാനും പാടില്ല അതിൻ്റെ വഴി ഞാൻ നോക്കാം ഓക്കേ വളരെ മോശം ഇനി ഇങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ത് വിശ്വാസത്തിലാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ ഡ്രൈവർമാരെയൊക്കെ നമ്മൾ വിളിക്കുക ഒരു ടൈമിൽ എത്താൻ കഴിഞ്ഞ് അങ്ങോട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നാത്തിനാണ് വണ്ടിയും കൊണ്ട് പോകുന്നത്